ശാരീരികവും മാനസികവുമായ ക്ഷേമത്തിന് കളികൾ എങ്ങനെ സഹായിക്കുന്നു എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതായത് നമ്മളിപ്പോൾ വെറുതെ ഇപ്പം ക്ലാസൊന്നുമില്ലാതെ അതായത് കുട്ടികൾക്ക് തന്നെ നമുക്ക് പറയാം രണ്ടുമാസം വെക്കേഷനൊക്കെ ക്ലാസൊക്കെ ഇല്ലാതെ സമയം വെറുതെ വീട്ടിലിരുന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് തിന്ന് ടി വിയും കണ്ടിരിക്കുന്നേൽ ഒരു കാര്യവുമില്ല നമ്മൾ മന്ദബുദ്ധിപോലെയായി പോകും പിന്നെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളു മെയിനായിട്ടു ഫോണിൻ്റെ കാലമാണ് കൂടുതൽ കുട്ടികൾക്ക് കളിക്കുന്നതിനേക്കാൾ ഇഷ്ടം വീട്ടിലിരുന്ന് പിന്നെ ഫോണിൽ കളിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം അതായത് ഗെയിം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ കായികപരമായിട്ടുള്ള കളികളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ശാരീരികവും മാനസികവും ആയിട്ടുള്ള ക്ഷേമമോക്കെ ഉണ്ടാവുള്ളൂ കുട്ടികൾക്ക് അപ്പോൾ മെയിൻ ആയിട്ട് ഫോണിൽ ഒന്നും കളിക്കാൻ അനുവദിക്കാതെ കുട്ടികളുടെ കൂടെ അതായത് കൂട്ടുകാരുമൊത്ത് കളിക്കാനുള്ള ഒരവസരം ഉണ്ടാക്കിക്കൊടുക്കുക എല്ലാവരും അല്ലെങ്കിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ കുറെ കഴിയുമ്പോൾ നമ്മളോടും മിണ്ടാണ്ടാവും അവർക്കെന്താ അതായത് ഒരാളോട് എങ്ങനെ ആശയവിനിമയം നടത്താം എന്നുള്ളതുപോലും അറിയാതെയായി പോവും ഫോണ് മാത്രമാകുമ്പം അപ്പോൾ മെയിൻ ആയിട്ട് അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്